പാലക്കാട് ജില്ലയിലെ സാമ്പത്തിക വ്യവസ്ഥ ഒക്കെ എന്ന് പറയുമ്പോൾ പ്രധാന പ്രദേശങ്ങളിൽ വരുന്നതാണ് നമ്മുടെ മലമ്പുഴ ഡാം പിന്നെ നമ്മുടെ കുറെ ഗവണ്മെന്റ് സ്ഥാപങ്ങളുണ്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഉണ്ട് ഇതിൽ നിന്ന് നമ്മുടെ സാമ്പത്തികം വളരെ മുന്നോട്ട് തന്നെ നിൽക്കുന്നത് ഇപ്പോൾ കൂടുതൽ സാമ്പത്തികം ഗവണ്മെന്റ്റിന് കിട്ടുന്നത് ഈ ബീവറേജസിൽ നിന്നാണ്

നമ്മുടെ നമ്മുടെ മാർക്കറ്റുകളും പുതിയ പുതിയ മാളുകളും ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ ഇപ്പോൾ പാലക്കാട് വന്ന് കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ ഒക്കെ പണികൾ പുരോഗമിച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ വന്നാൽ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥിതി മറ്റു സ്ഥാപങ്ങളെല്ലാം നം കുറച്ച് നമുക്ക് ഒരു ഡെവലപ്പ്മെൻറ് ഉണ്ടാകും